ഇന്ത്യയുടെ വിവിധപ്രദേശങ്ങൾക്കിടയിലെ സാംസ്കാരിക വിനിമയത്തിൽ അതുപോലെത്തന്നെ ആശയവിനിമയത്തിൽ മലയാളഭാഷയുടെ പങ്ക് വളരെ വലുതാണ് മുമ്പൊരു ചൊല്ലുണ്ട് ചന്ദ്രനിലും മലയാളി ഉണ്ട് എന്നുള്ള കാര്യം അത് സത്യം പറഞ്ഞാൽ ആ ഒരു ചൊല്ലിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ എല്ലാ സ്ഥാപനങ്ങളിലും എല്ലാത്തിൻ്റെയും ചുരുക്കത്തിലും ഒരു മലയാളീ സാന്നിധ്യം ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഒരു സ്ഥാപനത്തിൻ്റെ താഴേക്കിടയിലെ ലേബറ് തൊട്ട് അഥവാ അതുപോലെത്തന്നെ അതിൻ്റെ മാനേജിങ്ങ് ഡയറക്റ്റർ വരെയുള്ളതെല്ലാം മലയാളികൾ തന്നെയാണ് എന്നുള്ള കാര്യമാണ് ശ്രദ്ധേയമായ കാര്യം അപ്പം അതിൻ്റെ അടിസ്ഥനത്തിൽ നമ്മൾ മലയാള ഭാഷ വളരുകയും അതുപോലെത്തന്നെ മലയാളത്തിൻ്റെ കേരളത്തിൻ്റെ തനിമയുള്ള സാംസ്കാരികപരമായിട്ടുള്ള മറ്റ് കാര്യങ്ങൾ എല്ലാ എല്ലാ കേന്ദ്രങ്ങളിലും എല്ലാം രാജ്യങ്ങളിലും അലയടിക്കുകയും ചെയ്യും എന്നുള്ള കാര്യം സത്യം തന്നെയാണ് അപ്പം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ വിവിധ പ്രാദേശികങ്ങൾക്കിടയിലെ സാംസ്കാരിക വിനിമയത്തിലും ആശയവിനിമയത്തിലും മലയാളഭാഷയുടെ പങ്ക് വളരെ വലുത് ആണ് എന്നുള്ള കാര്യം ആണ് അതിനുത്തമ ഉദാഹരണങ്ങളാണ് നമ്മുടെ സിനിമയുടെ സ്വീകാര്യത ഇപ്പം തന്നെ നോക്കിയാൽ നമുക്ക് നോക്കിയാൽ അറിയാൻവേണ്ടി കഴിയും മുമ്പ് ഇപ്പോൾ ഒരു കാലം മുമ്പ് നമ്മുടെ മലയാള സിനിമ കണ്ടുകൊണ്ടിരുന്നത് നമ്മുടെ കേരളത്തിലുള്ളവർ മാത്രമായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പം നമ്മുടെ മലയാള സിനിമ കണ്ട് കൊണ്ടിരിക്കുന്നത് തമിഴ് നാട്ടിലുള്ളവർ അതുപോലെത്തന്നെ ലോകത്തിലെ നാനാഭാഗത്തുള്ളവർക്കും ഇടയിലെ മലയാള സിനിമക്ക് ഒരുപാട് സ്വീകാര്യത ഉണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് അപ്പം അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഈ നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അഭിമാനം കൊള്ളുന്ന ഒന്നുതന്നെയാണ് എന്ന് പറയുന്നത് മലയാള ഭാഷ എന്നുള്ളത് പറയുന്നത് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ വിവിധ പ്രാദേശികർക്കിടയിലെ സാംസ്കാരിക വിനിമയത്തിലും ആശയവിനിമയത്തിലും മലയാള ഭാഷ എന്ത് വലിയ പങ്ക് തന്നെയാണ് വഹിക്കുന്നത് എന്നുള്ള കാര്യം സത്യം തന്നെയാണ്